ഇന്നത്തെക്കാലത്ത് കൃഷിക്ക് ആളെ കിട്ടാത്തത് വെയിലു കൊള്ളാൻ മടി ആയിട്ടും മഴ കൊള്ളാനൊക്കെ മടി ആയിട്ടാണ് പിന്നെ വിദ്യാഭ്യാസം കൂടിയതു കൊണ്ട് കൃഷിയിലേക്കാരും അങ്ങനെയിറങ്ങണില്ല എല്ലാവരും മറ്റുള്ള കെട്ടിട തൊയ്ലാ അങ്ങനെയുള്ളതിനൊക്കെ പോകുകയാണ് ഉണ്ട് പണ്ടൊക്കെയെന്നു പറഞ്ഞാൽ ഞങ്ങൾ സ്കൂൾ പഠിക്കണ കാലത്തൊക്കെ അച്ഛനൊക്കെ കൃഷി ചെയ്തു പാടത്തിൽ ക്കൂടി ഞങ്ങൾ പോകാറുണ്ടായ്നു അന്നൊക്കെ കൃഷിചെയ്യണത് നല്ല ഇഷ്ടമായിരുന്നു കാരണം പാടത്തിൽ കൂടി നടക്കാനും ആ ചേറ് മേലൊക്കെയായാൽ നല്ല രസമുള്ളൊരു സംഭവമായിരുന്നു തോട്ടിൽ നിന്നു കളിയ്ക്കാനതിനൊക്കെ അങ്ങനെ കൃഷി ചെയ്തു പിന്നീടു കുറേ വളർന്നപ്പം ഞങ്ങൾ സ്വന്തമായിട്ടൊക്കെയിങ്ങനെ മറ്റുള്ള ഈ പാടമുള്ളവരോടിന്ന് ഇങ്ങനെ പാട്ടത്തിനടുത്ത് കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങി അച്ചനൊക്കെ നല്ല കൃഷി ചെയ്തന്ന് ഞാറ് പാകി ഞാറ് നട്ട് പിന്നതു വളർന്നു വന്നു വളമൊക്കെയിട്ട് വാ ക്ലിയറാക്കിയെടുത്ത് അങ്ങനെ നെല്ലുണ്ടാക്കിയിരുന്നു പിന്നീട് അച്ഛനൊന്നു വയ്യാതായ സമയത്ത് പിന്നെ കൃഷിയിനോടൊന്നും ആർക്കും താത്പര്യമില്ലാതായി പിന്നെ കൃഷിക്കു കൂലി പറയണതു കുറവാണ് പെണ്ണുങ്ങൾക്കൊക്കെ കൂലി കുറവാണ് ആണുങ്ങൾക്കും കൂലി കുറവാണ് ആണുങ്ങൾക്ക് ഇപ്പം ഇതിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു എഴുന്നൂറ് എണ്ണൂറു ഉറുപ്പ്യ ഒക്കെ ഉള്ളു പെണ്ണുങ്ങൾക്കതേമാതിരി അഞ്ഞൂറ് ഒക്കേ കിട്ടുള്ളൂ അപ്പോൾ ഈ വെയിലും മഴയും കൊണ്ടിട്ടു വേണ്ടേ ഇതു കിട്ടാൻ അത് എട്ടു മണി തൊട്ടഞ്ചു മണിവരെ എടുക്കണം അപ്പം അവർക്ക് വല്ല വീട്ടുജോലിക്കൊ തൊഴിലുറപ്പിനൊക്കെ പോയാൽ അതിലേറെ ഭംഗി ഇതു കിട്ടും പൈസ കിട്ടും തൊഴിലുറപ്പിനെ കുറിച്ചാണെങ്കിൽ കുറച്ചു നേരത്തെ പണി എടുത്താൽ മതിയല്ലൊ അപ്പം അതിങ്ങനെ കൂട്ടത്തോടെ പണിയെടുക്കുമ്പോൾ അങ്ങനെ കൃഷിക്കാളു കുറവായി പിന്നെ ഞാൻ കുറേയൊക്കെ കൃഷി ചെയ്തു നോക്കിയിട്ടുണ്ട് പോഡ മ് വാഴ അതുണ്ടാക്കി ഇങ്ങനെ സ്ഥലങ്ങൾ പാട്ടത്തിന് എടുത്തിട്ടാണ് ഉണ്ടാക്ക്യേണത് അതു കുറേ വിജയിച്ചു കുറേ വിജയിക്കാതെ പോയി കൃഷിക്കൊക്കതിന് ഒരുപാട് വളമേ ഇതൊക്കെ വാങ്ങി നമ്മളുണ്ടാക്കി കഴിഞ്ഞാൽത്തന്നെ അതു വിറ്റാൽ നമുക്ക് ആ കൂലി അല്ലാതെ അതിനു ലാഭമായിട്ടൊന്നും കിട്ടണില്ല അങ്ങനെയാണ് കൃഷിനെ ഓരോരുത്തർ പിന്നോട്ട് പോകാൻ തുടങ്ങിയത് കൃഷി ചെയ്തിട്ട് കടയിൽ കൊണ്ടു പോയി കൊടുക്കും അപ്പതിനുള്ള കൂലി നമ്മൾ നയിച്ചതിനുള്ള കൂലി ശരിക്കിതിനു കിട്ടണില്ല അങ്ങനെ കൃഷിയിൽ നിന്നു മാറിയിട്ട് എല്ലാവരും മറ്റുള്ള മേഖലയിലേക്കു തിരിഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ കൃഷി വല്ലാതെ നടക്കാത്തത് ഇങ്ങനെ ഓരോരുത്തർ പിന്നെ കെട്ടിടം പണിക്ക് അങ്ങനെ പോകാൻ തുടങ്ങി അങ്ങനെ കൃഷിക്കിപ്പോൾ വളരെ ആൾ കുറവാണ് ഓരോ സ്ഥലത്തും കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ വാഴയായാലും പൂടായാലും എന്തു കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിലും പന്നീൻ്റെ ശല്യം ഉണ്ടായതു കൊണ്ട് കൃഷിയൊക്കെ ചെയ്യാനെല്ലാവർക്കും മടി ആയിട്ടുണ്ട് ആ ഒരു വിഷയം അവിടെ കിടക്കണുണ്ട് അതാണ് കൃഷി ചെയ്യാൻ പോകാത്തത് പിന്നെ കാര്യമായിട്ട് വെയിൽ കൊള്ളാനുള്ള മടി കൊണ്ടാണ് പോകാത്തത് വെയിൽ മഴ എന്തൊരു വെയിലാണ് ഈ വെയിൽ കൊണ്ടു കൃഷി ചെയ്യണ്ടെ പിന്നെ പാടമെന്നു പറയാനിപ്പോൾ പണ്ടത്തെ മാതിരി കൃഷീ ചെയ്യാൻ പാടങ്ങളൊന്നുമില്ല പാടങ്ങളൊക്കേകദേശം നികത്തി കെട്ടിടങ്ങളും മറ്റുള്ള ഇതൊക്കെ വന്നതിനെ കൊണ്ട് കൃഷിക്കു സ്ഥലമില്ലാതായി കൃഷി ചെയ്യാനാളുമില്ലാതായി സ്ഥലമുള്ളവർക്കാണെങ്കിൽ കൃഷി ചെയ്യുക ആരെ വിളിച്ചാൽ കിട്ടണില്ല എല്ലാവരും ഭാരമുള്ള ജോലിക്കു പോയി വിദ്യാഭ്യാസം കൂടിയപ്പം പിന്നെ കടകളിലവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കാനാണ് തുടങ്ങിയത് കാരണമതാകുമ്പോൾ കുറച്ചു പൈസ കിട്ടുകയാണെങ്കിലും വെയിലും മഴയും കൊള്ളേണ്ടല്ലൊ അങ്ങനെ എല്ലാവരും ഓരോ മേഖലക്ക് തിരിഞ്ഞതു കൊണ്ടാണ് കൃഷിക്ക് ആളെ കിട്ടാതായതു കൃഷീനെ ആരും പ്രോത്സാഹിപ്പിക്കണില്ല എന്നതു കൊണ്ടാണ് ഒന്നാറതാണ് ന അവർ ചെയ്യണ പണിക്കുള്ള കൂലി ഒരിക്കലും കിട്ടണില്ല കൃഷി എറിഞ്ഞപ്പോൾ അതു മഴ വന്നു ഒലിച്ചു പോയ അതു നഷ്ടമായി അധികം വെയിലുറച്ചാൽ അതു കരിഞ്ഞു പോയാലും നഷ്ടമാണ് അതൊക്കെ ഈ കൃഷി ചെയ്യുന്നവർ അനുഭവിയ്ക്കാണ് അപ്പം അങ്ങനെയാണ് കൃഷിയെന്നു എല്ലാവരും പിന്നോട്ടു പോകാനുള്ള കാരണം